വിവാഹത്തിന് പോകുമ്പോഴത്തേക്കും നൃത്തം ചെയ്യാറുണ്ട് നൃത്തം കൂടി എന്ത് കൂടെ കളിക്കും എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുമ്പോഴത്തേക്കും കൂടി മിക്കവാറും കളിക്കാറുണ്ട് അതിൽ ഏത് പാട്ട് ആയിരുന്നാലും കൂടെ ജോയിൻ ചെയ്തു കളിക്കും പിന്നെ ഇഷ്ടം പ്രത്യേകിച്ച് ഇഷ്ടം ഉള്ളത് പുഷ്പയിലെ ഊ അണ്ടവ മാമാ അത് ഇഷ്ടമാണ് പിന്നെ സുല്ത്താനിലേ ബേബി കാ ബാസ് പസന്ദ് ഹെയ് ആ പാട്ട് ഇഷ്ടമാണ് അങ്ങനെ കുറച്ച് എ എടുത്തു പറയത്തൊക്കെ ഏതു പാട്ടിന്റെ കൂടെയും കളിക്കാറുണ്ട്